ആ വെ അത് ഇവ ആ നം നമുക്ക് ചെയ്യാമല്ലോ ഞാൻ ഒരു ഉച്ചക്ക് മുമ്പായിട്ട് അവിടെ എത്താം ബേബിച്ചേട്ടനാ ആ അത് ആ അത് ഞാൻ ആ ഞാന് രാവിലെ വന്നതിന് ശേഷം എന്തെക്കെയാണ് നമുക്ക് റിപ്പേറ് ചെയ്യേണ്ടത് എന്തെക്കെയാണ് മാറേണ്ടത് എന്നൊക്കെ അത് വന്ന് നോക്കിയതിന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എസ്റ്റിമേറ്റിനെ പറ്റി നമുക്ക് സംസാരം പെക് വരുവൊള്ളൂ പിന്നെ അതുപോലെ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയെ അത് കമ്പിയന്സരിച്ച് വ്യത്യാസം വരും നല്ല കാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങിക്കണേൽ അതിനനുസരിച്ച് വ്യത്യാസം വരും അത് നമുക്ക് ബേബിച്ചേട്ടനട് എടുത്ത് തരുകയോ അല്ലെങ്കില് ഞാന് നേരിട്ട് വാങ്ങിക്കുവോ എന്താന്ന് വെച്ചാൽ ചെയ്യാം ആ ആ ആ അത് നമുക്ക് ചെയ്യാം നമുക്ക് ഇപ്പം ഉദയലില്ലെങ്കില് നമുക്ക് അതൊക്കെ തോപ്രാംകുടീലാണേൽ കുറച്ചൂടെ ക്വാളിറ്റിയൊള്ള സാധനങ്ങൾ അവിടെന്ന് കിട്ടും നമുക്ക് അവിടെന്ന് പോയി ഇപ്പം വലിയ അകലം ഉള്ള സ്ഥലമല്ലല്ലോ നമുക്ക് അവിടെ പോയി വാങ്ങിക്കാം ആ അത് നമുക്ക് ചെയ്യാം അത് ഞാൻ അത് വന്ന് നോക്കട്ടെ എന്നിട്ട് എന്തെക്കെയാണ് മാറാനുള്ളത് അത് പ്ലമ്പിംഗ് നേരത്തെ ചെയ്തിട്ട് എത്ര കാലം ആയി ആണല്ലേ ആ അപ്പം അത് അന്നൊരു ക്വാളിറ്റി കുറഞ്ഞ സാധനം ആണെങ്കില് നമ്മൾ അത് ചിലപ്പോൾ മൊത്തം മാറേണ്ടി വരുമായിരിക്കും അത് നമ്മൾ ചെന്ന് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് അത് എന്തെക്കെയാണ് മാറണ്ടിയെ എന്തെക്കെ പണികൾ വരും എന്ന് അറിയാന് സാധിക്കുവുള്ളൂ ആ അപ്പം ഞാൻ ആ ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഞാൻ അവിടെ വന്നിട്ട് അത് നോക്കീട്ട് എന്തെക്കെയാണ് വീട്ടിൽ അടുത്ത് തന്നെയാണല്ലോ അതെയോ ദൂരെ അകലം ഉണ്ടോ ഇപ്പം ആ ഇതൊരും പമ്പറ് ഏത് മോട്ടറിന്റെക്കെയാണ് അത് നല്ലത് നല്ല കമ്പനിയാണല്ലോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് മറ്റേ അതും മാറേണ്ടി വരുമോ സാഹചര്യം ഉണ്ടോ മോള് പമ്പും അത് റിന്സ് എന്ന് പറഞ്ഞൊണ്ട് പിന്നെ വേറെ രണ്ട് കമ്പികളെക്കൊണ്ട് നമ്മുടെ നല്ല സാധനം നോക്കി അതൊക്കെ നോക്കി എടുക്കാം വില എടുക്കാം ഉം പിന്നെ ആ എന്തായാലും അത് നമുക്ക് ഇപ്പം അങ്ങ് പുതിയ കഴിയുമ്പോൾ നമുക്ക് നല്ല സാധനങ്ങളൊക്കെ നോക്കി നമുക്ക് വാങ്ങിച്ച് ബേബിച്ചനും കൂടെ വന്നാൽ മതി നമുക്ക് ഒരുമിച്ച് പോയി മേടിച്ച് എടുക്കാം അപ്പം ബേബിച്ച് ആ ഇപ്പം ഞാൻ കുറച്ച് നാളായി ഞാൻ പ്ലംബിംഗ് വര്ക്കെക്കെ ചെയ്തിട്ട് അതുകൊണ്ട് കൃത്യമായി ഇപ്പോഴത്തെ വില എനിക്ക് അറിയത്തില്ല ഓരോ ദിവസോം ചെല്ലും തോറും വിലകൾ ഇങ്ങനെ വര്ദ്ധിച്ചോണ്ടിരിക്കുവല്ലേ അതുകൊണ്ട് അതേപ്പറ്റി എനിക്ക് കൃത്യമായ അതിനേപ്പറ്റി എനിക്ക് അറിയത്തില്ല ആ ആ ഓൾ ഇൻ ഓൾ ആ നമ്മൾ നോക്കീട്ട് വേറെ ഒന്ന് രണ്ട് കടകള് പോയി നോക്കീട്ട് നമുക്ക് മെച്ചപ്പെട്ടതും അല്ലെങ്കില് ക്വാളിറ്റിയുള്ളതും വില വ്യത്യാസവും ഒത്തിരി റേഞ്ച് റേറ്റ് വ്യത്യാസം ഉണ്ടോന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് എടുക്കാം ഞാൻ ഉച്ചയക്ക് മുമ്പായിട്ട് വരും ബേബിച്ചേട്ടൻ അവിടെ കാണുമായിരിക്കൂല്ലോ അല്ലെ അതൊന്ന് ഞാൻ നേരിട്ട് അങ്ങ് വരാം അവിടെ ഒത്തിരി ആള് ആ ഓക്കെ ഓക്കെ ആ ആ ആ ആളുകൾ